നമ്മുടെ വിനോദസഞ്ചാരികൾക്ക് നമ്മുടെ ഇന്ഡ്യയിലെതന്നെ വിനോദസഞ്ചാരികളായിക്കോട്ടെ അല്ലെങ്കില് പുറത്തുനിന്ന് രാജ്യങ്ങളിലേന്ന് പുറം രാജ്യങ്ങളില് നിന്നുള്ള വിനോദസഞ്ചാരികളായിക്കോട്ടെ അവര്ക്ക് ചെയ്യാന് അവര്ക്ക് നമ്മുടെ നാട്ടില് വന്നിട്ട് അതായത് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തില് വന്നിട്ട് കാണാനിഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് അതില് എടുത്തു പറയുവാണെങ്കില് എന്റെ നാട്ടില് അതായത് തൃശൂരിലെ തൃശൂര്പൂരമാണ് അത് സാധാരണ അല്ലെങ്കില് സാധാരണ അത് ഏപ്രില് പകുതിയും അല്ലെങ്കില് ഏപ്രിലവസാനമോ അവസാനത്തോടു കൂടിയും അല്ലെങ്കില് മെയ് ആദ്യ വാരത്തും ആയിരിക്കും അത് സാധാരണ സംഭവിക്കാറുള്ളത് നടക്കാറുള്ളത് അത് നമ്മുടെയൊരു മലയാളികളുടെ ഒരഭിമാനം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു ഉത്സവമായിട്ട് തന്നെയാണ് നമ്മുടെ തൃശൂര്പൂരം കണക്കാക്കപ്പെടുന്നത് അപ്പോള് അങ്ങനെ പറയുമ്പോളതിലൊരു പ്രത്യേകത എന്തായാലും കാണില്ലേ ഇരുവശത്തും നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് പതിനാല് ആനകള് നിരന്ന് നിന്ന് അവരുടെ മസ്തകം ഭംഗിയുള്ള നെറ്റിപ്പട്ടം കൊണ്ട് വര്ണ്ണിച്ച് ആവരുടെ ശാസ്താവിനെയും തോളിലേറ്റിക്കൊണ്ട് ആനകള് അവിടെ നില്ക്കുന്നുണ്ടാകും ആനകളുടെ തൊട്ടു മുന്നില്ത്തന്നെയായിട്ട് ഒരു മേളക്കാരുടെ ഒരു കൂട്ടമുണ്ടാവും അവരുടെ ആ ഒരു ചെണ്ടമേളം കേള്ക്കാനും അവരുടെ ആ ഒരു താളവും ആള്ക്കാരുടെ ആരവവും എല്ലാംകൂടി കേൾക്കുമ്പോള് വളരേയധികം സന്തോഷം വരും അപ്പോള് അത് കാലാവസ്ഥ ഇച്ചിരി ചൂടായിരിക്കും പക്ഷെ നിങ്ങള്ക്ക് കിട്ടുന്ന സന്തോഷം ഞങ്ങളുടെ സന്തോഷം കണ്ട് നിങ്ങള്ക്ക് തന്നെ വളരെയധികമൊരു ഉന്മാദം ഉന്മാദലഹരി ഉണ്ടാവുന്നതാണ് അപ്പോള് നിങ്ങള്ക്ക് ശരിക്കും പറഞ്ഞാല് അതിനുശേഷം ഒരു ഗംഭീര വെടിക്കെട്ടുണ്ട് ആ വെടിക്കെട്ടും കൂടി കണ്ടുകഴിയുമ്പോള് എല്ലാം എന്താണു പറയുക സാ സഫലമാവും